കലാരൂപം അങ്ങനെ അല്ല ഞാനുണ്ടാക്കിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മംഗൾയാൻ്റെ ഒരു സെറ്റപ്പായിരുന്നു നമ്മള് അതിൻ്റെ ഒരു മിനി മോഡലെന്ന് വേണമെങ്കിൽ പറയാം പ്ലാസ്റ്റർ ഓഫ് പാരീസ് പിന്നെ തെർമ്മോകോൾ പിന്നെ കുറച്ച് വുഡ് അതായത് മരത്തിൻ്റെ വടിയും കാര്യങ്ങളും അങ്ങനെ എല്ലാ സാധനങ്ങളും വച്ചിട്ടാണ് ഞാനീ അതുണ്ടാക്കിയത് അതിന് നമുക്ക് മെയ്നായിട്ട് പ്രശ്നം വന്ന് കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയത് കൊണ്ട് കുറച്ച് വെയ്റ്റ് കൂടുതലായിരുന്നു പിന്നെ നമുക്ക് ആ സമയം അതായത് പ്ലാസ്റ്റർ ഓഫ് പാരീസാകുമ്പോൾ കുറച്ച് ഒട്ടും അത് അതിൻ്റെ സെറ്റിങ് ടൈം കുറവായത് കൊണ്ട് പെട്ടന്ന് ഒട്ടാനെന്തൊക്കെ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം മിസ്റ്റേക്ക് പറ്റി അപ്പോൾ അത് വീണ്ടും വീണ്ടും ശ്രമിച്ച് നാല് നാല് അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഞാൻ ട്രൈ ചെയ്തതില് എനിക്കത് കറക്റ്റായിട്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിലതെനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് അതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു പ്രചോദനം തന്നെയായിരുന്നു ആ സംഭവം എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഓരോന്ന് ഉണ്ടാക്കാനുള്ളൊരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു പ്രചോദനം ഉണ്ടാക്കണമെന്നുള്ളൊരു ഇൻസ്പിറേഷൻ എനിക്ക് അതിൽനിന്ന് ഉണ്ടായി